കളികളെന്നു പറഞ്ഞാൽ ക്രിക്കറ്റ് കളി സാറ്റ് കളി പന്തുകളി കബഡികളി അക്ക് കളി അങ്ങനെ ഒത്തിരി കളികളുണ്ട് അതുപോലെതന്നെ ഇപ്പം ഓരോരുത്തർ ഗെയിം കളിക്കും ഫോണിൽ അങ്ങനെ പിന്നെയിപ്പം ചിലവരുടെ ബുദ്ധി ഗെയിം കളിക്കുമ്പം ചിലവർക്ക് ബുദ്ധി വികസിയ്ക്കും അതുപോലെതന്നെ അതിൽ നിന്ന് അവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു അതുപോലെതന്നെ സാറ്റ് കളി പണ്ടത്തെ നല്ല സന്തോഷം തരുന്നു നമ്മൾ സാറ്റ് പിള്ളാരെയൊക്കെ കളിച്ച് ഒരാളെ കണ്ട് കിട്ടുമ്പോൾ സാറ്റ് കളിയും കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓടിയോടി ചാടി കൂട്ടുകാരികളെയെക്കെ അന്ന് നല്ല രീതിയിൽ സഹകരിച്ച് അവരെ കാണാനുള്ള കണ്ട് കിട്ടാനുള്ള അവരെ കാണുമ്പോൾ നമക്കൊരു വല്ലാത്തൊരു സന്തോഷം അങ്ങനെ നമുക്കൊരു എഞ്ചോയ് വരും നമ്മുടെ മനസ്സിന് ഇപ്പോൾ എന്നാ എന്നാണെങ്കിലും കൊച്ചിലെ നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോഴല്ലെ നമുക്ക് എന്നാണെങ്കിലും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അന്നൊക്കെ നമ്മൾക്ക് ദുഃഖമില്ലല്ലോ ഈ സാറ്റൊക്കെ കളിക്കുമ്പം നമ്മൾ കൂടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടത്തില്ലെ അങ്ങനെ പിറ്റേ ദിവസം നമുക്കങ്ങനെ കളിക്കണമെന്ന് തോന്നും അങ്ങനെ സാറ്റ് കളിയും കൊണ്ട് നല്ല സന്തോഷമായിരുന്നു അതുപോലെതന്നെ അക്ക് കളിക്കുമായിരിന്നഉഉ ചാടിച്ചാടി അതുകൊണ്ട് നമ്മുടെ കാലിനും നമ്മുടെ ശരീരത്തിനും എല്ലാം നല്ല എഞ്ചോയ് ആണ് നല്ല ആരോഗ്യം കിട്ടും അതുകൊണ്ട് അക്ക് കളിച്ച് അവസാനം കണ്ണുപൊത്തി കളിക്കുന്നത് കണ്ണുപൊത്തി കളി അങ്ങനെയൊക്കെ എന്തു നല്ല കളിയായിരുന്നു പിന്നെ കബഡി കളിക്കും കബഡി കളിക്കുമ്പോൾ ഓരോരുത്തർ അങ്ങോട്ട് കയറിച്ചെല്ലുമ്പം അവരെ പിന്നെ പിടിച്ച് ഇട്ടു ഇന്നിപ്പം ഭയങ്കര ആട്ടഹാസവും ഭയങ്കരം ചിരി ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ മേല ഇതെല്ലാംകൊണ്ട് ശരീരത്തിനു നല്ല വ്യായാമം അന്ന് കളിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് ഒരു രോഗവും ഉണ്ടാകത്തില്ല നമ്മൾ ആഹാരം കഴിക്കുമ്പം അത് നമ്മുടെ ശരീരത്തിന് ആഹാരം കഴിക്കുന്നത് അനുസരിച്ച് നമുക്ക് ദഹനം ദഹനം ഉണ്ടാകും നമ്മൾ കളിക്കുമ്പം നമ്മുടെ ശരീരത്തൻ്റെ പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകത്തില്ല അപ്പം കളിക്കാത്തവർക്കാണ് കൂടുതൽ രോഗങ്ങളും അവർക്കൊരു മനസ്സിന് സന്തോഷമില്ല കളിക്കുകയാണെങ്കിൽ എപ്പോഴും കളികളിൽ നിന്നേ നമുക്കെപ്പോഴും സന്തോഷമാണ് ഏതു കളിച്ചാലും ക്രിക്കറ്റ് കളിച്ചാലും സന്തോഷം കിട്ടും അതൊക്കെ നമ്മൾ നോക്കി നിന്നുപോവും അത് അറിയാവുന്നവരാണെങ്കിൽ അതുപോലെതന്നെ കബഡി കളിക്കും അതുപോലെ സാറ്റ് കളി അക്ക് കളി അങ്ങനെ കളിക്കുന്നു അതുപോലെതന്നെ കല്ലുകളി ഇങ്ങനെ കല്ല് കല്ല് നമ്മൾ കൈ കയ്യിലിങ്ങനെ ഇട്ടു കളിക്കുമായിരുന്നു അതുപോലെതന്നെ പെൺപിള്ളേർ ഗെയിം കളിച്ചു അവർക്ക് ചുമ്മാ സമയം പോവും അങ്ങനെ നല്ല അങ്ങനെ ഒത്തിരി കളികളും കൊണ്ട് നല്ല പ്രോത്സാഹനം നല്ല നമ്മൾ നമ്മൾ സന്തോഷം കിട്ടുന്ന കളികളുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വ്യായാമം അതെല്ലാം നല്ലതാണ് കളികളിൽ നിന്ന് പറയുന്ന കളിയെന്നു പറയുന്നത് നമുക്കെപ്പോഴും സന്തോഷമാണ് സന്തോഷം എന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിന് എപ്പോഴും കുളിർമ അതുപോലെതന്നെ ആരോഗ്യം ഇതൊക്കെയാണ് കളികളിൽ നിന്ന് കിട്ടുന്നത്